ഹലോ ഹലോ എസ് ബി ഐ ബാങ്ക് അല്ലേ എനിക്ക് ഞാനൊരു പുതിയതായിട്ട് ഞാൻ അമൽരാജ് ആയിരുന്നു എനിക്ക് എനിക്കൊരു ലോൺ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇപ്പം ഒരു പുതിയതായിട്ട് ഒരു കോഴി ഫാമ് തുടങ്ങുന്നുണ്ട് അപ്പം അതിന് എന്തൊക്കെ പ്രൊസീജിയർ ആണ് ലോണിന് വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇല്ല ലൈസൻസ് കിട്ടിയിട്ടില്ല ആ അതൊക്ക നോക്കി അപ്പം വീടിൻ്റ പരിസരത്ത് കുറച്ച് മേലെ ലൈസൻസ് കിട്ടണം അല്ലേ ലൈസൻസിൻ്റെ ലൈസൻസും എടുത്തിട്ട് പിന്നെ വേറെയെന്താ വേണ്ടത് ആ അതെൻ്റെ പേരിൽ തന്നെയാണ് ഡിപ്പോസിറ്റ് ഇല്ല ഞാൻ വേറൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അത് കുറച്ചും കൂടി ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ വേറെയെന്തൊക്കെയാണ് വേണ്ടത് ആ എ പി എൽ എ പി എല്ലാണ്

ആ സ്ഥലം ഉണ്ട് സ്ഥലം ഉണ്ട് സ്ഥലം ഒരു ഒര് ഏക്കർ ഇല്ല വീടുകളില്ല വീട് ഇല്ലാത്ത സ്ഥലമാണ് ഞാൻ നോക്കി എടുത്തിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ കുറച്ച് മേലെയാണ് വേറെ പുറമേ വലിയ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല

ആ ഓക്കെ ഓക്കെ അത് ആളെ കൊണ്ടുവരാം എപ്പോഴാണ് വരുന്നത് നാളെ ഉണ്ടാകുമോ

ഒരു മുന്നൂറ് കോഴിയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നത് ബാക്കി നമുക്ക് പിന്നെ ഇത്

ഞാൻ ഒരു അഞ്ച് ലക്ഷം രൂപേൻ്റ ലോണാണ് നോക്കുന്നത്

ആ ഓക്കെ ഓക്കെ ഓക്കെ മാം ഓക്കെ